ആലപ്പുഴ ജില്ലയിലെ വിനോദ സഞ്ചാര ആകർഷണ കേന്ദ്രങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ഹൗസ്ബോട്ട് ടൂറിസത്തിന്റെ പുന്നമട പുന്നമടയിൽ നിന്നും ആണ് കൂടുതലായി ഹൗസ്ബോട്ടുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് ടൂറിസ്റ്റുകൾ എന്ന് പറയുന്നത് വിനോദ സഞ്ചാരികൾ എന്നുദ്ദേശിക്കുന്നത് വരുന്നത് യൂറോപ്യൻസ് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽപ്പെട്ടവർ കേരളീയർ കേരളീയരും ശരിക്കും കുട്ടനാട്ടുകാർപോലും ഒരു എഞ്ചോയ്മെൻ്റ് എന്നുള്ള ആ ഒരു രീതിയിൽ അവർ ഹൗസ്ബോട്ടിൽ യാത്ര ചെയ്യാറുണ്ട് അത്രയ്ക്കും ഒരു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നാട്ടുകാരായ അവർക്ക് പോലും ഇഷ്ടപ്പെടുന്ന ഒരു മേഘലയാണ് ടൂറിസം മേഖലയാണ് ഹൗസ്ബോട്ട് അവിടെ ഹൗസ്ബോട്ടില് യാത്ര ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ വിനോദ സഞ്ചാരികളെ ആകർഷിക്കുന്നത് നാടിന്റെയൊക്കെ കുട്ടനാടിന്റെ സൗന്ദര്യം പച്ചപ്പ് ഒപ്പം അവിടുത്തെ ഭക്ഷണ കാര്യങ്ങൾ അതായത് പുഴ മീനുകളുള്ള കറിവെച്ചുള്ള ഭക്ഷണം പിന്നെ നാട്ടിലെ കരിക്ക് അങ്ങനെയുള്ള ആയ സാധനങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിക്കൂടിയാണ് ആൾക്കാർ കൂടുതലായും ഹൗസ്ബോട്ടിൽ യാത്ര ചെയ്യുന്നത് ആ ഹൗസ്ബോട്ടിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ കാണാറുണ്ട് വിനോദസഞ്ചാരികളും നാട്ടുകാരായവർ പോലും വളരെയധികം ഒത്തിരി സന്തോഷിച്ച് ഒത്തിരി ആ എഞ്ചോയ് ചെയ്താണവർ ഇതിൽ യാത്ര ചെയ്യുന്നത് വളരെ സുഖകരമായ ഒരു ദിവസത്തെ യാത്രയാണ് ഒന്നോ രണ്ടോ ഏറെ ദിവസങ്ങൾ എടുക്കാം അതുപോലെതന്നെ മറ്റൊരു വിനോദ സഞ്ചാര കേന്ദ്രമാണ് ആലപ്പുഴ ബീച്ച് ആലപ്പുഴ ബീച്ചെന്ന് പറയുമ്പോൾ ഇത്രയും ജനം തിങ്ങി വരുന്ന ഒരു സ്ഥലം ഞാൻ മറ്റെവിടെയും കണ്ടിട്ടില്ല അത്രയ്ക്കും ആളുകൾ ആലപ്പുഴ ബീച്ചിൽ ഭയങ്കര തിരക്കാണ് ആലപ്പുഴ ബീച്ചിൽ ആലപ്പുഴ ബീച്ചിലെ കാലാവസ്ഥ എന്നുപറയുന്നത് അധികം വലിയ തിരയില്ല മിതമായ രീതിയിലുള്ള കാലാവസ്ഥയും എല്ലാം ഏകദേശം നല്ലത് ഒപ്പം അതിനോട് ചേർന്നുതന്നെ കുട്ടികൾക്കുള്ള പാർക്കും ആളുകൾക്ക് വലിയ ആളുകൾക്ക് വിശ്രമിക്കാനും ഒക്കെയുള്ള ഒരു സജ്ജീകരണങ്ങളും അവടെയുണ്ട് പിള്ളേർക്കാണെങ്കിൽ പാർക്കിൽ ഒത്തിരി കളിക്കാനുള്ള സൗകര്യങ്ങളും ഒത്തിരി ഒത്തിരി അവസരങ്ങൾ ഗവൺമെൻ്റിപ്പം ഇറക്കിയിട്ടുണ്ട് അതിനുള്ള ഉപയോഗപ്രദമായ സൗകര്യങ്ങളൊക്കെ അവിടെ ഇറക്കിയിട്ടുണ്ട് അങ്ങനെ ആലപ്പുഴ ബീച്ചും വിനോദ സഞ്ചാര കേന്ദ്രങ്ങളിലെ ഒരു മുഖ്യ ഘടകമാവുന്നു ശരിക്കും ചങ്ങനാശ്ശേരിക്ക് കിഴക്കോട്ടുള്ള ഒത്തിരി ആളുകൾ ആലപ്പുഴ ബീച്ച് സന്ദർശ്ശിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് പിന്നെ ആലപ്പുഴയിലെ വിനോദ സഞ്ചാര കേന്ദ്രങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ചമ്പക്കുളം സെൻ മേരീസ് ബസിലിക്കയാണ് സെൻ മേരിസ് ബെസിലിക്കയെ സംബന്ധിച്ചെടുത്തോളോം പൂർവ്വികർ പറഞ്ഞ് കേട്ടിരിക്കുന്നത് കല്ലൂർക്കാട് സെൻ മേരീസ് ചർച്ചെന്നാണ് അതിൻ്റെ നേരത്തത്തെ പേര് അത് കല്ലൂർക്കാട് എന്നു പറയുന്നത് അവിടെ ഒരു വലിയ വനമായിരുന്നു ഒരു കാടായിരുന്നു ആ കാട് വെട്ടിത്തെളിക്കാൻ തിരുവിതാങ്കൂർ രാജാവ് ചെയ്തത് എന്നെ പൊൻപണം ആ കാട്ടിലേക്ക് എറിഞ്ഞുയെന്നാണ് പറയുന്നത് അങ്ങനെ ആ പൊൻപണം എടുക്കാൻ വേണ്ടി ആളുകൾ ഈ കാട്ടിലേക്ക് ഓടിക്കയറി അവർ കാടിനെ വെട്ടിത്തെളിച്ച് അവിടം വനം ആ കാട് വൃത്തിയാക്കി എടുത്തു അവിടെയാണ് ഈ പള്ളി പണിതുയർത്തിയിരിക്കുന്നത് അതുകൊണ്ടാണ് അതിനെ കല്ലൂർക്കാട് എന്നുങ്കൂടി ഒരു പേര് വന്നത് ആ മാതാവിന്റെ നാമധേയത്തിലുള്ള ആ പള്ളി ഔസേപ്പ് പിതാവിന്റെ ഊട്ട് നേർച്ചയിലും വളരെ പ്രസിദ്ധമാണ് കൊല്ലംകാർ വരവുകാർ ഒത്തിരി ആൾക്കാർ ഈ ഔസേപ്പ് പിതാവിന്റെ നേർച്ച ഊണ് മാർച്ച് പത്തൊമ്പതിലെ ഊട്ട് നേർച്ചക്കായിട്ട് തദ്ദേശീയരും സ്വദേശീയരുമായ എല്ലാ ആൾക്കാരും നാനാ ജാതി മതസ്ഥരും അന്നത്തെ ദിവസം അവിടെ ഊട്ട് നേർച്ചയിൽ പങ്കെടുത്ത് ആ നേർച്ചച്ചോറ് കഴിച്ച് അവരുടെ അവരുടെ രോഗങ്ങൾക്കും ശാരീരികവും മാനസികവുമായ എല്ലാ സൗഖ്യവും നേടിയാണ് ആളുകൾ അവിടെ നിന്ന് പിരിയാറുള്ളത് പിന്നത്തെ ഒരു പ്രസിദ്ധമായ സ്ഥലമെന്ന് പറയുന്നത് സെൻ്റ് ജോർജ് ചർച്ചാണ് എടത്തുവായിലെ അവിടെ ഗീവർഗീസ്സ് പുണ്യാളന്റെ നാമധയത്തിലുള്ള അതിപുരാതനമായ ആ ദേവാലയം വളരെ മനോഹരമായൊരു ദേവാലയം അവിടെയും ഗീവർഗീസ്സ് പുണ്യാളന്റെ മെയ് മാസത്തിൽ ഗീവർഗീസ്സ് പുണ്യാളന്റെ തിരുനാളിനോടനുബന്ധിച്ച് ഒട്ടേറെ ഒട്ടേറെയെന്ന് പറഞ്ഞാൽ ധാരാളം ജനങ്ങൾ ഏകദേശം ഒരു മാസത്തോളം ആളുകളവിടെ പങ്കെടുത്ത് അതിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ച് സായൂജ്യമടഞ്ഞ് തിരിച്ചുപോകുന്നു